കരയിൽ നിന്ന് അകലെയുള്ള സ്ഥലങ്ങളില് നീന്തുമ്പോള് നമ്മള് ഒരു സ്വിമ്മിംഗ് സൂട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ലേ നമ്മളൊരു പിന്നെ ഓക്സിജൻ സിലിണ്ടർ അതുപോലെത്തന്നെ ചെവിക്കും ചെവിക്കും കണ്ണിനും അടങ്ങുന്ന ഒരു പിന്നൊരു കണ്ണട കണ്ണിലധികം വെള്ളം പറ്റാണ്ട്ക്കണ്ടീട്ട്ള്ള കണ്ണട പിന്നെ കാലിനൊരു ഷൂ പോലൊരു സംഭവമുണ്ട് സ്വിമ്മിങ്ങിന് അനുയോജ്യമായ അത് അങ്ങനത്തെ എല്ലാം ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ട്യൂബ് ട്യൂബ് നമ്മളെ മുന്നോട്ട് മുൻ മുന്നില് വെച്ചിട്ട് നമ്മള് നീന്തുക മാക്സിമം നീന്തിയിട്ട് ട്യൂബും അന്നേരം മുന്നോട്ടുതന്നെ കൊണ്ടുപോവുക അന്നേരം അഥവാ നമ്മളേതെങ്കിലുമൊരു ഘട്ടത്തില് മുങ്ങിപ്പോയിട്ടുണ്ടെങ്കില് ആ ട്യൂബ് ഉപയോഗിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെത്തന്നെ വലിയ വലിയ പുഴകളെല്ലാം ഉണ്ടാവില്ലേ ആ പുഴകള് അതുമല്ല അവിടെയെല്ലാം ചുഴികളുണ്ടാവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഈ ചുഴികള് അപ്പോള് ഈ ചുഴികളിൽ പെടാതിരിക്കാൻ മാക്സിമം കൂടുതല് നമ്മള് ശ്രദ്ധിക്കണം അതെന്താണെന്നു വെച്ചുകഴിഞ്ഞാല് ചുഴികളിൽപ്പെട്ടുകഴിഞ്ഞു കഴിഞ്ഞാല് എത്ര നീന്താന് അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും നമുക്ക് നീന്താൻ പറ്റില്ല ആ ചുഴി നമ്മളെ കൊണ്ടുപോവ്വാ ചെയ്യുക അതുപോലെത്തന്നെ പാറ പാറയിടുക്കുകള് അത് നമ്മള് കാണാനുള്ള ഒരു കണ്ണട ഉണ്ട് ആ കണ്ണട വാങ്ങിവെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം എന്താണെന്നുവെച്ചു കഴിഞ്ഞാല് നമുക്ക് വെള്ളത്തിലങ്ങനെ കണ്ണു തുറന്നുനോക്കാൻ പറ്റില്ല അപ്പോള് ഈയൊരു കണ്ണട വാങ്ങിവെക്കുമ്പോള് നമുക്ക് കണ്ണു നല്ലവണ്ണം തുറക്കാം വെള്ളത്തിൻ്റെ അടീലൂട്ടെയെല്ലാം നമ്മള് നീന്തുമ്പോള് അന്നേരം ഈ പാറക്കെട്ടുകളും അതുപോലെത്തന്നെ പായല് പായല് നമ്മളുടെ കാലിൻ്റെ ഇടയില് കുടുങ്ങിയിട്ടുണ്ടെങ്കില് നമുക്ക് ജീവന് ആപത്ത് തന്നെയാണ് അതുപോലെതന്നെ പാറക്കെട്ടുകളുടെ ഉള്ളില് കാല് കുടുങ്ങിയാലും അപ്പോള് ഇതെല്ലാം നമുക്ക് നമ്മള് നീന്തുമ്പോള് ഒരാള്ക്ക് പ്രശ്നം തന്നെയാണ് എങ്കിൽ പോലും നമ്മളതിലെ തടസ്സം ചില തടസ്സങ്ങള് മാറ്റിയെടുക്കണ്ടീറ്റ് ഈ പായക്കെട്ട് പായലെല്ലാം കുറച്ച് മാറ്റി കൈകൊണ്ടെങ്കിലും മാറ്റി മാറ്റിയിട്ടും അതുപോലെതന്നെ കല്ല് പാറകള് കാണ് കാണ്ന്ന് കാണണ്ടീട്ട് ഒരു കണ്ണടയുണ്ട് ആ കണ്ണട വെച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഒരു വിധമെല്ലാം കാഴ്ച വെള്ളത്തിൻ്റെ അടിയിലുള്ള കാഴ്ചകള് സുഖമായിട്ട് കാണാൻ പറ്റും